പാലക്കാട് എന്ന് പറയുമ്പോൾ പാലാക്കാട് ജില്ലയിൽ എപ്പോഴും അത്യാവശ്യം നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ല തന്നെ ആണ് നമ്മുടെ കേരളത്തിൽ എടുക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും ചൂടുള്ള ജില്ല എന്ന് അറിയപ്പെടുന്നത് ഇപ്പം പാലക്കാട് തന്നെ ആയിരിക്കും കാരണം എന്താണെന്നു വെച്ചാൽ കാരണം ഇവിടെ മഴ അത്ര ഇപ്പോൾ അധികം ആയിട്ട് വരുന്നില്ല പ്രളയത്തിന് ശേഷം മഴ എന്ന് പറയുന്നതും അങ്ങനെ കാര്യം ആയിട്ട് വരുന്നില്ല നമ്മൾ കർക്കിടക മാസത്തിൽ പോലും മഴ കാര്യായിട്ട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ കൃഷി കൃഷിയും കൃഷിക്കാരും ഒക്കെ ഭയങ്കരമായിട്ടും അതിനെ നോക്കി കാണുകയാണ് അപ്പോൾ മഴ വീഴാത്തതുകൊണ്ട് തന്നെ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് ചില ടൈമിൽ ഈ പൊള്ളൽ ഏറ്റിട്ട് തന്നെ കുറേ ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നുണ്ട് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ കാലാവസ്ഥ ഭയങ്കര മോശം ആണ്